നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ആവശ്യമില്ലാത്ത അതായത് ഒരു ദിവസം മുഴുവൻ വെള്ളം ആവശ്യമില്ലാത്ത ഒരാളും ഇന്ന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മള് എണീക്കുമ്പോൾ നമുക്ക് ബ്രഷ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണം വെള്ളം പിന്നെ അത് പോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള പാചകങ്ങള് രാവിലെ നമുക്ക് ചായയ്ക്ക് കടിയുണ്ടാക്കും പിന്നെ ചായക്ക് വെള്ളം വേണം പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ചോറ് വെക്കണെങ്കിൽ നമുക്ക് വെള്ളം വേണം നമ്മള് എന്തെങ്കിലും കടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വെള്ളം വേണം പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് രാവിലെ ബാത്റൂമിൽ പോകും ഒരുപാട് കക്കൂസിലിരിക്കുമ്പം നമുക്കിപ്പം എല്ലാം ക്ലീനൊക്കെ ആക്കണമെങ്കിൽ നമുക്ക് വെള്ളം വേണം അത് പോലെ നമുക്ക് കുളിക്കണമെങ്കിൽ വെള്ളം വേണം പിന്നെ നമ്മള് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വെള്ളം കൊണ്ട് പോകും പിന്നെ ചോറും കറിയും ഒക്കെ കൊണ്ട് പോകും അങ്ങനെയുള്ളവർക്ക് ചോറ് കറി ഉണ്ടാക്കാനും വെള്ളം വേണം കൊണ്ട് പോകാനും വെള്ളം വേണം പിന്നെ പാത്രം കഴുകാൻ വെള്ളം വേണം തുടയ്ക്കാൻ വെള്ളം വേണം പിന്നെ നമ്മള് ഈവെനിംഗിലെ ചായ ചായ കാപ്പി എന്താണെങ്കിലും അതിന് വെള്ളം വേണം രാത്രിക്കത്തെ ഡിന്നറിന് അതിന് വെള്ളം വേണം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കൈ കഴുകണമെങ്കിൽ വെള്ളം വേണം പിന്നെ അങ്ങനെ വെള്ളം ആവശ്യമില്ലാത്ത ഒരു ഘട്ടവും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തിനാണെങ്കിലും വെള്ളം വേണം വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റില്ല